നമ്മൾ നീണ്ട ബൈക്ക് യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് ആദ്യമായിക്കൊണ്ട് തന്നെ

വാഹനത്തിൻ്റെ എല്ലാ രേഖകളും നമ്മുടെ കൈ വശം വേണം അതുപോലെ മറ്റു നമ്മുടെ രേഖകളും നമ്മുടെ കയ്യിൽ നമ്മൾ ദൂര യാത്ര ഒക്കെ പോകുകയാണെങ്കിൽ ചിലയിടത്ത് നിന്നൊക്കെ നമ്മുടെ ഐഡന്റിയെ കുറിച്ച്

ആരോഗ്യം ഇല്ലാതെ ബൈക്ക് ഓടിച്ച് കൊണ്ട് അപകടങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല അപ്പം ആ കാര്യമെല്ലാം എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഇനി

എടുത്തുകൊണ്ട് വാഹനം ഒരു ദൂരയാത്രയ്ക്ക് പൂർണ്ണമായി യോഗ്യമാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ യോഗ്യമില്ലെങ്കിൽ നമുക്ക് വഴിക്കും വഴിയിൽ വെച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയും തിരിച്ച് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അപ്പം ആ ഒരു ഒരു അവസ്ഥയിൽ നിന്ന്